ആ ഹലോ ഇത് മരിയ മരിയ ഹോൾ സെയിൽ ഷോപ്പ് തന്നെയല്ലേ ആ അതേ എനിക്ക് ഇന്ന് വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് കുറച്ച് സ്വീറ്റ്സ് വേണമായിരുന്നു ആ സ്വീറ്റ്സ് പിന്നേ കോക്കനട്ട് ബിസ്കറ്റ് ഉണ്ടല്ലോ ഉണ്ട് അപ്പം ആ പിന്നേ വേറെ നമുക്ക് പറ്റുന്ന ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ

യ ആ അത് നമുക്ക് ഈ ഐസ്ക്രീമിന് എന്തോ ഒരു ഒര് നൂറ് നൂറ്റമ്പത് പേര് ഉണ്ട് അതെ അതെ അതെ

മ് കപ്പ് കേക്ക് അല്ലല്ലോ കപ്പ് കേക്ക് അല്ലല്ലോ വേറെ ഈ കപ്പിനകത്ത് ഉള്ള ഒരു ഐസ്ക്രീമുണ്ടല്ലോ കപ്പ് കോൺ കോൺ കോണൊക്കെ കോൺ കോൺ ഉണ്ട് ആ അത് മുപ്പത് രൂപ വരും അല്ലെ ആ ഹാ ആ

ആ അത് പൊറോട്ട വേണ്ട പൊറോട്ട വേണ്ട നമ്മൾക്ക് ഈ ന്യാ ഈ സ്വീറ്റ്സ് ഏത് സ്വീറ്റ്സ് പല സൈസില്ലേ സ്വീറ്റ്സ് ഈ വലിയ അങ്ങനെ സൈസൊക്കെ ഇല്ലെ വലിയ സൈസ് നമുക്ക് അത് അതൊര് പത്ത് ഇരുന്നൂറ് എണ്ണം വേണം ഇരുന്നൂറ് എണ്ണം വേണം ഉം ഉം നമ്മൾ എസ് ടൈപ്പിൽ ആണോ ഓ അത് ഉവ്വാല്ലെ അപ്പം ഈ ഈ കിലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇപ്പോൾ കിലോയ്ക്ക് എടുക്കുവാണെങ്കിൽ ഒര് കിലോ എന്ന് പറഞ്ഞാൽ എത്രയെണ്ണം ഉണ്ടാകും ആണോ ആ അപ്പം നമുക്ക് അതിൻ്റെ ഒരു കിലോ ഒരു കിലോയുടെ ആ ഒരു കിലോയുടെ ഒരു പായ്ക്കറ്റ് മതിയാകുമേ ആ ആ ആ പിന്നെ അപ്പോൾ അത് അതും ഈ പറഞ്ഞ അത്രയും എണ്ണം നമുക്ക് വേണം ഒരൂ ഇരുന്നു ഇരുന്നൂറ് എണ്ണം എങ്കിലും വേണം ആ അര കിലോയുടെ ഉവ്വാല്ലെ ആ അപ്പോൾ ആ അത് അങ്ങനെ തന്നെ ചെയ്യാം ഉം പിന്നേ എന്നാ കപ്പ് ഐസ്ക്രീമിൽ നമുക്ക് ഈ ക്രീം കേക്ക് ഇല്ലേ ക്രീം കേക്ക് ആ ക്രീം കേക്ക് ആ ചോക്ലേറ്റിൻ്റെ മതി ചോക്ലേറ്റ്

അത് ഒരു രണ്ട് കിലോ വരുന്ന ഒരെണ്ണം എടുത്തോ ആ അതിന് എന്നാ അതെന്താ റേയ്റ്റ് അതിന് എത്ര രൂപ ആകുമെന്നേ ആയിരത്തി നാനൂറ് ഉം ഉം ആ പേരെഴുതണം പേരെഴുതണം ബിറ്റി ബിറ്റി എ ബിറ്റി പോൾ ആ ശരി ശരി അത് വാട്സാപ്പ് ചെയ്തേക്കാം എ ആ ആ അപ്പം നമുക്ക് ഇത്രയും ഇത്രയും മതി ആ ആ ഈ നാല് ഐറ്റം മതി ഇത് നമുക്ക് വീട്ടിൽ വീട്ടില് എത്തിച്ച് തരാൻ വല്ല വീട്ടില് എത്തിച്ച് തരില്ലേ

ആ ആ ആ ആ ശരി ശരി അത് വൈകി ആ വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പഴത്തേക്ക് എത്തിച്ചാൽ മതിയേ ആ ശരി ശരി ഓക്കെ ആ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി